ഹലോ ആ ഇന്ന് ഇന്ന് പോവാനായിട്ട് നമുക്ക് പദ്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകാനാണ് താൽപര്യം ഹലോ ആ അപ്പോൾ നമുക്ക് വേണ്ട അറേഞ്ച്മെൻറ്സൊക്കെയൊന്നു ചെയ്യാൻ പറ്റുമോ ഞങ്ങൾക്ക് ഒരു ഇന്നോവയിൽ ഒരു എട്ട് പേരുണ്ട്

ഞങ്ങൾ ബുധനാഴ്ചയാണ് വരുന്നത് ആ ആ ആ വരുന്ന ബുധനാഴ്ച രാവിലെ നമ്മളൊരു എട്ട് മണിയോടുകൂടി തിരുവനന്തപുരത്തെത്തും

ഇല്ലയില്ല ഞങ്ങളത് അത് അത് സ്വന്തം വാഹനത്തിലാണ് വരുന്നത് അപ്പം അപ്പോൾ വാഹനത്തിൻറെ കുഴപ്പമില്ല നമുക്ക് പിന്നെ ഫുഡും മറ്റുകാര്യങ്ങളുമൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തുതരണം

ഓ ഓ ശരി ശരി ആ അതുമതി

ആ ആ ആ ശരി ശരി ഓക്കെ ഓക്കെ ആ ആ

ആണോ ആ ആണോ ആ ശരി ശരി

ആണ് പോകാം പോണം നമുക്ക് അവിടെയും വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമല്ലെ അപ്പം അവിടെയും പോകാൻ താൽപ്പര്യമു ണ്ട്

ആണ് ആ ഓ ശരി ശരി നമ്മൾ ആ നമ്മൾ അവിടെ വന്നതിന് ശേഷം അതിൻറെ സൗകര്യംപോലെ നമുക്കൊരു രണ്ടുദിവസത്തിനകം കാണാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം തിരുവനന്തപുരത്തു കാണാനാണ് താൽപര്യം ആ ആ ആ സിറ്റിക്കകത്തുതന്നെ എവിടെയെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്തുതരണം ഫുഡും അക്കൊമൊഡേഷനും ഓക്കെ ഓക്കെ ഞങ്ങൾ സിറ്റിയിലെത്തിയതിനു ശേഷം ഈ നമ്പറിലേയ്ക്ക് കോൺടാക്ട് ചെയ്യാം ഓക്കെ ഓക്കെ താങ്ക് യൂ